മുട്ട് വൈദ്യം ശമിപ്പിക്കാനായിട്ട് എനിക്കധികം വശവൊന്നും ഇല്ല എന്റെ അപ്പൻ്റെ മുട്ട് വേദന കുറയ്ക്കാനായിട്ടും അപ്പൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു നാട്ടുവൈദ്യം എനിക്കറിയാം എരിക്കിന്റെ ഇല അരച്ച് മുട്ടേല് പുരട്ടി വെച്ച് കെട്ടി കിടക്കുക രാവിലെ എഴുന്നേൽക്കുമ്പോള് മുട്ടിലെ നീരും എല്ലാം മാറാറുണ്ട് പിന്നെ ചെറിയ വലിയ വ്യായാമം എടുക്കാതെ ചെറിയ ചെറിയ വ്യായാമം ചെയ്ത് എന്ന ആയാസം അധികം ആയാസം കാല്മുട്ടിന് കൊടുക്കാതെ ഇരിക്കുന്നതും മുട്ടിന്റെ വേദന കുറയാനായിട്ട് സാധിക്കും പിന്നെ മുട്ടിന്റെ വേദന നടക്കുന്ന ഈ ഫ്ലൂയിഡ് ഡ്രൈ ആയിട്ട് ആയിരിക്കാം അതുകൊണ്ട് ഫ്ലൂയിഡ് വരുത്തുന്ന ആഹാര സാധനങ്ങളൊക്കെ പഴമക്കാലത്ത് പലരും ഒത്തിരി കഴിക്കാറുണ്ടായിരുന്നു നല്ല പുത്തരി കഴിക്കുമ്പോൾ നമുക്ക് തവിട് ഉള്ള അരികളൊക്കെ കഴിക്കുമ്പോളൊക്കെ മുട്ട് വേദനയും ഒക്കെ കുറഞ്ഞ് കുറഞ്ഞിരിക്കുവാറുണ്ട് ഓക്കെ താങ്ക് യൂ